ആ എവിടെയായിരുന്നു ഈ വഴിക്ക് കുറെ ആയില്ലേ കണ്ടിട്ട് ഫാമിലിയുടെയാണോ കല്യാണം ഓഹ് അതിന്റെ നിന്റെ നിങ്ങളുടെ കുടുംബത്തെയോ അതോ വൈഫിന്റെ കുടുംബത്തേയോ നിങ്ങളും പോയില്ലേയപ്പോൾ ആ ഞാൻ ഇവിടെ സുഖം ഇവിടെ സുഖം എല്ലാരും ദാ സുഖമായി ഇരിക്കുന്നു ആ ഹെല്പിനുണ്ടായിരുന്നു അവര് ഹെല്പിനുണ്ടായിരുന്നു ഈ ക്ലാസ്സ് ഇങ്ങനെ തുടങ്ങിയപ്പോൾ അവര് പോയി ഒരു അവര് പാർട്ട് ടൈം ആയിട്ടു വന്നുനിന്നതാണ് ആ ചേച്ചിയിപ്പോൾ വൈഫിന്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ആ മക്കളിതാ പഠിക്കുന്നു ഒരാള് രണ്ടാം ക്ലാസ്സിലും ഒന്നു പിന്നെ ചെറുതല്ലേ ഇല്ലയില്ല ഇപ്പോൾ രണ്ടുവയസായിട്ടേ ഉള്ളു ഇല്ലയില്ല വീട്ടിൽ നിന്നങ്ങനെ വിട്ടയക്കുന്നില്ല മ്മ് അപ്പോൾ ചേച്ചിയവിടെ ഇരിക്കും

ആ അടുത്തുതന്നെ ഇവിടെത്തന്നെ കരിയാട് സ്കൂളിൽ തന്നെയാണ് പഠിക്കണേ ഏഹ് ആ സ്കൂളുണ്ട് സ്കൂൾ വീട് അടുത്തായത് കൊണ്ട് അവൻ തന്നെ ഒറ്റയ്ക്ക് വരും ആ കുറേയായി കണ്ടിട്ട് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു

ഓ ഇവരവിടുന്ന് നേരത്തെ നേരത്തെ പോയില്ലേ അവിടെ എന്തായിരുന്നു വർക്ക് ബാംഗ്ളൂരില് ഓ അപ്പോൾ എങ്ങനെയാ വീട്ടിലേക്കു വീട്ടിലേക്കു വരുന്നത്

ഓ അതെങ്ങനെയാ ഷിഫ്റ്റ് ഷിഫ്റ്റായിരുന്നോ പണി

അവരിന്റെ തന്നെയാണോ ഫുഡും റൂമുമൊക്കെ

ഈ ലിസ്റിലുള്ളതല്ലേ ഒരു വീട്ടിക്കു വീട്ടിക്കുവാങ്ങാ തന്നെയല്ലേ കൂടുതൽ അങ്ങ് എടുക്കാം ആ ശരി ശരി ഞാൻ നിങ്ങള് വരുമ്പോഴേക്കും എടുത്തു വയ്ക്കാം അത് ആ ഓക്കേ റെഡി